മലയാള ഭാഷ സംരക്ഷിക്കുന്നതിനും പോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പഴയകാല കാവ്യങ്ങൾ പിന്നെ പലതരം രചനകളും എല്ലാം നമ്മൾക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഒരുപാട് കലാ ആ ആവിഷ്കാരങ്ങളുണ്ട് നമുക്ക് ഓട്ടൻതുള്ളൽ കഥകളി ചാക്യാർ കൂത്ത് അങ്ങനെ പല കലാരൂപങ്ങളും നമ്മൾ പല തലമുറകളായിട്ട് കൈമാറി വരുന്നുണ്ട് അപ്പം അങ്ങനെ കൈമാറി വരുന്നത് കൊണ്ടുതന്നെ മലയാളത്തിൻ്റെ ആ ഒരു തനിമ മലയാളഭാഷയുടെ ആ ഒരു തനിമ ഒട്ടും തന്നെ നമക്ക് കുറയാതെ പുതിയ തലമുറയിലേക്ക് കൈമാറാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് പിന്നെ വിദ്യാലയങ്ങളിൽ മലയാളം നിർബന്ധമായും പഠിച്ചിരിക്കണം പിന്നെ നമുക്ക് ഗവെൺമെൻറ്റ് ഓഫീസികളിലേക്ക് നിയമനത്തിനായി മലയാള ഭാഷ അറിഞ്ഞിരിക്കണമെന്നും പരീക്ഷകൾ മലയാളഭാഷയില് തന്നെ ഉണ്ടായിരിക്കുന്നതായിട്ടും നമുക്ക് ഉണ്ട് അപ്പ ഇതെല്ലാം ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ മലയാളഭാഷയെ കൂടുതല് പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഭാഗങ്ങളാകാനുള്ള കാര്യങ്ങളാവുന്നിണ്ടിത് പിന്നെ സിനിമ മലയാളസിനിമ മലയാളസിനിമ ഗാനങ്ങള് ഇതെല്ലാം ആളുകളിലേക്ക് നല്ല വൈവിദ്യത്തോടുകൂടി അതിനെ കൊണ്ടു വരിക ആണെങ്കിൽ അത് കൂടുതൽ നമുക്ക് അത് സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും തന്നെ സാധിക്കും